ഇപ്പോൾ ചുള്ളിയാറ് അതേപോലെ സൈലന്റ് വാലി നാഷണൽ പാർക്ക് വനങ്ങള് ഇങ്ങനെ വനങ്ങള് വനപ്രദേശങ്ങള് ഇവിടെ ഒക്കെ കറക്റ്റ് ശുചീകരണപ്രവർത്തനങ്ങളൊക്കെ നടക്കാറുണ്ട് അവിടെയൊക്കെ അതിനുവേണ്ട ആളുകളും ഉണ്ട് നമുക്കവിടെയൊന്നും മലിനമാകുന്ന പ്രശ്നം വരുന്നില്ല ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളും അവിടെ വരുന്നില്ല വരുന്നതെന്ന് പറഞ്ഞ് നമ്മള് പോവുന്നവര് അവിടെ ഇടണ വേസ്റ്റ് അവിടത്തെ ജീവജാലങ്ങൾക്കും അതേപോലെ അവിടുത്തെ വനങ്ങളിൽ വസിക്കുന്ന മറ്റു മൃഗങ്ങൾക്കും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് മാത്രമാണുള്ളത് അതും മാക്സിമം വൃത്തിയാക്കാറുണ്ട് എന്നാലും അതിന് അവർക്ക് കാണാൻ പറ്റാത്തതൊക്കെ ആയിട്ടുള്ള മലിന വസ്തുക്കൾ മാത്രമാണ് അവിടെ കിടക്കാറുള്ളത് അത് പിന്നെ നമ്മള് പുറത്തോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഈ പുഴ ഇവിടെയിപ്പോൾ ഈ മെയിൻ ജലസ്രോതസ്സ് എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയുടെ സൈഡിലൊക്കെ പുഴയോട് ചേർന്നൊന്നും ഫ്ലാറ്റൊന്നും പണിയാൻ പാടില്ലായെന്നാണ് നിയമം ഉള്ളത് അതൊക്കെ തെറ്റിച്ചുകൊണ്ടുതന്നെ ഒരുപാട് ഫ്ലാറ്റുകളും അതേപോലെ മണല് വാരലും പുഴ നിന്ന് മണ്ണ് എടുക്കലൊക്കെയായിട്ട് പുഴയാകെ ശോഷിച്ച് പോയിരിക്കുകയാണ് അതുപോലെ വെള്ളക്കുറവ് കാലാവസ്ഥയില് വരുന്ന മാറ്റം ജലത്തിൻ ജലം ലഭിക്കാതെ വരുക ജലത്തിൻ്റെ കുറവ് വരുക ഇതൊക്കെ വലിയ വെല്ലുവിളികളാണ് അതേപോലെ ഈ ഫ്ലാറ്റിൽ നിന്ന് വരുന്ന ഉള്ള ജലം ഒന്നാമത് ജലം കമ്മിയാണ് ഇല്ല അപ്പോൾ ഈ ഫ്ലാറ്റിൽനിന്നു വരുന്ന മലിനജലം ഈ പുഴയിലോട്ട് ഒഴുക്കിവിടുക അതേപോലെ ബാക്കി വരുന്ന വേസ്റ്റ് പുഴയിലേക്ക് തട്ടുക തളളുക അപ്പോൾ ഇങ്ങനെയൊക്കെയുണ്ടാവുമ്പോൾ പുഴ മലിനപ്പെട്ടുക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഈ പുഴയില് ഉണ്ടാവുന്ന ജീവജാലങ്ങൾക്കും അതേപോലെ പുഴയില് ആ വെള്ളം കൊണ്ട് ജീവിക്കുന്നവർക്കും ഒക്കെ അതൊരു പ്രധാന പാരിസ്ഥിതിക വെല്ലുവിളിയാണ് അത് മുൻസിപ്പാലിറ്റി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അത് മുൻസിപ്പാലിറ്റി ശ്രദ്ധിക്കാണ്ട് ഈ ഫ്ലാറ്റിന് അനുമതി കൊടുക്കണത് മൂലമുണ്ടാകുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് ഇവരുടെ ഈ ജലം മലിനമാകുന്നതും ജലസ്രോതസ്സുകള് പോകെ പോകെ ഇല്ലാതാവുകയാണ് ഇതിലൂടെ അത് ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ പിന്നെ നമ്മളിപ്പോൾ നഗരങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവിടത്തെ മുൻസിപ്പാലിറ്റി കറക്ടായിട്ട് ഓടകള് ഈ റോഡ് സൈഡിലുള്ള ഓടകള് വൃത്തിയാക്കാണ്ടിരിക്കുക അപ്പോൾ അതിലൊക്കെ വേസ്റ്റ് അടിയുക അതേപോലെ പ്ലാസ്റ്റിക്ക് ഇതൊക്കെ ഇതൊക്കെ അവിടേയും ഇവിടേയും ഒക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ അലക്ഷ്യമായി ഇട്ടത് മുനസിപ്പാലിറ്റീൻ്റെ ഒരു ഇതില് വരുന്നതാണ് അപ്പോൾ അത് മുൻസിപ്പാലിറ്റി മുൻകൈ എടുത്തുകൊണ്ട് വൃത്തിയാക്കേണ്ട ഒന്നുകൂടിയാണ് അതവര് വൃത്തിയാക്കാണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങള് വൃത്തിയാക്കുന്നുമുണ്ട് പക്ഷേ അതിനനുസരിച്ചിട്ട് വൃത്തികേടും ആവുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇതൊക്കെയാണ് പാലക്കാട് ജില്ലയിലെ പ്രധാന പ്രകൃതിക്ക് ദോഷം വരുന്ന ചില കാര്യങ്ങളൊക്കെ പാരിസ്ഥിതികപ്രശ്നങ്ങള്